ആ പറയൂ ആ ആ ആ അതെ അതെ ആ തമിഴ് നാട്ടില് മലയാളം ഒക്കെ നന്നായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് മലയാളം ഒക്കെ അറിയണത് അതെ അല്ലെ ആ ഓക്കെ എവിടെയാണ് സ്ഥലം അതല്ല അച്ഛൻ്റെ സ്ഥലം ആ പാലക്കാടല്ലെ ഓ അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് ഓക്കെ അപ്പോൾ ഉണ്ണി എവിടേക്ക് പോകാനാണ് നോക്കുന്നത്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

നമ്മുടെ കുറെ മറ്റേ കുറെ വേലയും കാര്യങ്ങളുവൊക്കെ ഉണ്ട് കേട്ടൊ നമ്മുടെ നാട്ടില്

ആ നമ്മളിപ്പോൾ ഇതിൻ്റെ നെമ്മാറ വേല വരുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രില് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ ആയിട്ടാണ് വരിക സാധാരണ നല്ല അടിപൊളി വെടിക്കെട്ടും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാവിലെയും വൈകുന്നേരം ഒക്കെ ഓ ആന പിന്നെ ആന ഇല്ലാതെ എന്ത് ആനയൊക്കെ ഇഷ്ടംപ്പോലെ ഒരു പത്ത് മുപ്പത് ആനയൊക്കെ ഉണ്ടാവും പിന്നെ മെയിൻ മെയ്നായിട്ടുള്ള ഫേയ്മസന്ന് പറഞ്ഞാൽ വെടിക്കെട്ടാണ് നെമ്മാറ വെല്ലിങ്ങിയ്ക്ക് ഫേയ്മസ് വെടിക്കെട്ട് തന്നെയാണ് വെടിക്കെട്ട് കാണാനാണ് മെയ്നായിട്ട് കൂടുതലും ആൾക്കാര് ഉണ്ടാവുക ഒര് വൈകുന്നേരവും ഉണ്ടാവും പുലർച്ചെ ഉണ്ടാവും രണ്ട് ദിവസം വെടിക്കെട്ട് ഉണ്ടാവും പിന്നെ സാമ്പിള് വെടിക്കെട്ട് ഉണ്ടാവും രണ്ടു ദിവസം മുമ്പ് ആ സംഭവം അടിപൊളിയാണ് നെമ്മാറ ആ ഇതിപ്പോൾ പാലക്കാട് എന്ന് വരണ വഴിക്ക് നമ്മള് പാലക്കാട് എന്ന് നേരെ അതായത് വാളയാർ വഴി വരിയാണ് പറഞ്ഞാൽ ആലത്തൂരെത്തുമ്പോൾ അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഒരു നാലഞ്ച് കിലോമീറ്ററ് ആരോട് ആരോടു ചോദിച്ചാൽ വഴി പറഞ്ഞ് തരും നെമ്മാറ വല്ലിയ്ക്ക് അന്നാ പിന്നെ നല്ല തിരക്കായിരിക്കും രാവിലെ നേരത്തെ വന്നാലെ നമുക്ക് ബ്ലോക്കിപ്പെടാണ്ട് അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒര് സ്ഥലത്തേക്ക് ഒക്കെ നിക്കാൻ പറ്റോള്ളു കാർണം എല്ലാവരും കേരളത്ത്ന്നായാലും കേരളത്ത് ഇപ്പോൾ എല്ലാഭാഗത്ത്ന്നും എല്ലാ ജില്ലയിന്നും ഒക്കെ ആൾക്കാര് വരും അതെ ആ ആ എന്നാൽ പിന്നെ നമുക്ക് നിങ്ങള് ഒര് മാർച്ച് ഫസ്റ്റിന് തന്നെ ഇങ്ങട് വന്നോളിന് നമ്മള് ഇഷ്ടംപ്പോലെ ഞാ ഇങ്ങനെ പറഞ്ഞ് തരാം ആദ്യം ചെനക്കുത്തൂർ പൂരം ഉണ്ടാവും ആ ഒറ്റപ്പാലത്ത് പിന്നേ നമ്മുടെ തൃശ്ശൂര് ജില്ലയില് ഉത്രാലിക്കാവ് ഉണ്ടാവും തൃശ്ശൂർ പൂരത്തിന് മുമ്പ് ഉത്രാലികാവ് വേല ഉണ്ടാവും അത് മാർച്ച് മാസത്തില് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയിരിക്കും വരിക ഉത്രാലിക്കാവ് വേല അത് കേരളത്തിലെ രണ്ടാമത്തെ ഫേയ്മസ് വെടിക്കെട്ടുള്ള സ്ഥലവാണ് ആ പിന്നെ നമ്മുടെ കാവശ്ശേരി പൂരവൊണ്ട് പാലക്കാട് അതും നമ്മുടെ ഇതിന് മുൻപാണ് വരിക ആ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് ഒരു രണ്ട് മാസം ഇവിടെ നടന്ന് വേല കാണാനുള്ള അത്രയും പൂരം നമ്മുടെ കേരളത്തിലുണ്ടാവും നേര് അതൊര് ഒര് സൈഡിന്ന് ചാർട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ട് തുടങ്ങിയ പിന്നെ ഇവിടുന്ന് അതാ പറഞ്ഞത് രണ്ട് മൂന്ന് മാസത്തേക്ക് ഇവിടുന്ന് വേല കണ്ട് വേല കണ്ട് തന്നെ നടക്കാം ഇവിടെ റൂമൊന്നും എടുക്കണ്ട വണ്ടിത്തന്നെ ഫുള്ള് അങ്ങട് കറക്കം ഒരു അറ്റത്തുന്ന് പിടിച്ചാൽ അങ്ങ് വരെ ഇപ്പം ഇവിടുന്ന് ഈ പാലക്കാട് തൃശ്ശൂര് തന്നെ അവിടെ എർണാകുളം കൊല്ലം എല്ലാ ജില്ലയിലും പോയിട്ട് ഫേയ്മസായിട്ടുള്ള കുറെ അമ്പലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ എല്ലാവിടെയും വെടിക്കെട്ടും ചെണ്ടമേളവും ആനകളും അടിപൊളി ഉഷാറ് പരിപാടിയായിരിക്കും ആ പിന്നെ തൃശ്ശൂ അതെല്ലാം കഴിഞ്ഞ് അവസാനം തൃശ്ശൂർ പൂരവും കഴിഞ്ഞ് ലാസ്റ്റ് വരെ നമ്മുടെ തിരുവില്ല മേളയാണ് പാലക്കാടിൻ്റെ ബോർഡറ് തന്നെയാണ് തിരുവില്ലാമുല്ല വേല അവിടെയും കാണാൻ അപ്പോൾ എന്തായാലും നിങ്ങള് മാർച്ച് ഫസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റാക്കി വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏപ്രിൽ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞിട്ട് പൂവാം ആ ഓക്കെ ഈ നമ്പറൊന്ന് പറഞ്ഞെ ആ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ് തരാം എമ്പത്തൊമ്പത് നപ്പത്തി മൂന്ന് നപ്പത്തി രണ്ട് എമ്പത്തൊന്ന് എമ്പത്തെട്ട്

ഓക്കെ റെഡി